എന്റെത് ഒരു ഗ്രാമം എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥലം അല്ല എന്നാലും ചെറിയൊരു ടൗൺ എന്ന് പറയുന്നൊരു സ്ഥലം തന്നെയാണ് ഞാൻ ഉള്ളത് ടൗണിൻ്റെ ഏകദേശം നടുക്ക് തന്നെയാണ് ഉള്ളത് ഇവിടെ പല തരത്തിലുള്ള കച്ചവടങ്ങളാണ് ഉള്ളത് പലചരക്കും മലഞ്ചരക്കും പിന്നെ ഈ വീട് വീട് പണിയും ആവശ്യമുള്ള പൈപ്പുകളും കമ്പികളും അങ്ങനെ കിട്ടുന്ന സ്ഥലങ്ങൾ ഉണ്ട് പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോളോബ്രിക്സ് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ട് അതായത് ഈ വീട് കെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന കല്ലുകളും വാതിലുകളും വാതിലുകളും അല്ല പടികളോക്കെ ഉണ്ടാക്കുന്ന സ്ഥലം ഒരു ഇതിണ്ട് വ്യവസായം ഉണ്ട് പിന്നെ ഉള്ളത് ഹോട്ടലുകൾ ഉണ്ട് പിന്നെ ചെറിയ ചെറിയ അല്ലാത്ത കടകളുണ്ട് ചെറിയ ചെറിയ സാധനങ്ങൾ വിക്കുന്ന കടകളുണ്ട് പച്ചക്കറികൾ വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് പിന്നെ നമ്മുടെ ഗവൺമെന്റിൻ്റെ മാവേലി സ്റ്റോർ ഉണ്ട് റേഷൻ കട ഉണ്ട് ഇങ്ങനെ പല തരത്തിലുള്ള വ്യവസായങ്ങൾ ഉള്ള ഒരു ചെറിയൊരു ടൗൺ ആണ് ഞാൻ ഇപ്പം ഉള്ളത് പിന്നെ അവിടെത്തന്നെ ജ അക്ഷയ ജന അക്ഷയ ഉണ്ട് ജനസേവന കേന്ദ്രം അല്ലാതെ വേറൊരു ജനസേവന കേന്ദ്രം ഉണ്ട് പിന്നെ ഈ കാലിത്തീറ്റ അങ്ങനെ ഉള്ള സാധനങ്ങൾ കൊടുക്കുന്നൊരു കട ഉണ്ട് ഇവിടെ പിന്നെ ഇതൊരു ചെറിയൊരു ഗ്രാമമുണ്ട് ഗ്രാ ഇത് ബാങ്ക് ഉണ്ട് ഇവിടെ ചെറിയ വളരെ ചെറിയൊരു ബാങ്കാണല്ലോ അത് വലിയ നാഷണലൈസ്ഡ് ബാങ്ക് ഒന്നും അല്ല ചെറിയൊരു ചെറിയൊരു ബാങ്കാണ് പ പഞ്ചായത്ത് ബാങ്ക് ബാങ്ക് പോലെ അപ്പം അങ്ങനെ പല തരത്തിലുള്ള വ്യവസായങ്ങൾ ഉള്ളൊരു ചെറിയൊരു ടൗൺ ആണ് എൻറ്റേത്